വീട്ടിൽ തൂത്തുവാരാറുണ്ട് തുടക്കാറൊക്കെ ഉണ്ട് ഉള്ളിലാണെന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവിടേയും അടിച്ചുവാരും മൊത്തത്തില് പൊടി തട്ടി എല്ലാം അടിച്ചു വാരി തുടച്ചെടുത്ത് അതുപോലെത്തന്നെ പുറത്താണെങ്കിലും എല്ലാവിടേയും അടിച്ചു വാരി മെഴുകി മെഴുകി അതിൽ ചാണകമൊക്കെ തെളിച്ചിട്ട് തെളിക്കാറുണ്ട് അത് അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വീട്ടിനുള്ളിൽ കേറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടണത് നല്ലൊരു വിശാലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിട്ട് നമുക്ക് തോന്നും അങ്ങനെ ഞാൻ വീട്ടിലങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് എന്താ പറയുക ആരോഗ്യത്തിന് ആണെങ്കിലും നമുക്ക് ഭയങ്കര സമാധാനം കിട്ടാറുണ്ട് അതെല്ലാം നമ്മുടെ ആ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാ നമുക്കെന്നും ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്